എന്റെ ജീവിതത്തിലെ എന്റെ ചെറുപ്പത്തിൽ റാഫെത്തട്ട് പിതാവ് ആകുന്നതിനു മുൻപേ അച്ഛനായിട്ടു ഞങ്ങളുടെ പള്ളിയില് വന്ന് പെരുന്നാൾക്കു നല്ല പ്രസംഗങ്ങളൊക്കെ പറയുകയും എല്ലാവരെയും ഈശോയിലേക്ക് കൂട്ടിച്ചേര്ക്കാനുള്ള ഒരു അനുഗ്രഹം അച്ഛനിൽ ഉണ്ടാകുകയും ചെയ്തു

നമ്മളെ കുറിച്ച് ഒരു ദേവിക ദൈവീക സാന്നിധ്യത്തിലേക്കു കൂട്ടിക്കൊണ്ടു പോകാന് പിതാവിനു സാധിച്ചു അത് എന്നും നിലനില്ക്കുന്നതുപോലെ എന്റെ ജീവിതത്തില് ഇപ്പോഴും നിലനില്ക്കുന്നുണ്ട്